എൻ്റെ കൂട്ടുകാരൻ അവൻ ഒരു യുട്യൂബർ ആണ് അവൻ ആദ്യഘട്ടങ്ങളിൽ യൂട്യൂബിൽ നിന്നൊരു വരുമാനത്തിനായി കുറെ കഷ്ടപ്പെട്ടിരുന്നു സാങ്കേതിക വിദ്യയുടെ സഹായവും മറ്റും ഉപയോഗിച്ചു കൊണ്ട് അവൻ അവൻ്റെ കഷ്ടപ്പാടിലൂടെ അവൻ്റെ യൂട്യൂബ് ചാനൽ പടുത്തുയർത്തി അവൻ ഇപ്പോൾ ലോകം കണ്ട ഒരു നല്ല യൂട്യൂബറാണ് അഷ്കർ ടെക്കി എന്നാണ് അവൻ്റെ പേര് എനിക്ക് അവനെ വളരെ ഇഷ്ടമാണ് അവനെൻ്റെ ഒരു സുഹൃത്തുമാണ് ഇത് ഇത് ഈ സാങ്കേതിക വിദ്യകളുപയോഗിച്ചു കൊണ്ട് എല്ലാവർക്കും സമൂഹത്തിൽ ഉയർച്ചകളുണ്ടാകാൻ കഴിയും അതുകൊണ്ട് ചീത്ത കാര്യങ്ങളുമുണ്ട് അതു നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ വഴിക്കായി പോകുന്നതാണ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൽ രക്ഷപ്പെട്ട കുറേ ആളുകളുണ്ട് യൂട്യൂബറന്മാർ ക്രീയേറ്റേഴ്സ് അങ്ങനെ കുറേ ആളുകൾ ഉണ്ട് സമൂഹത്തിൽ സാങ്കേതിക വിദ്യയ്ക്ക് വളരെ നല്ല ഒരു ഇതാണ് കിട്ടുന്നത്